ഇപ്പൊൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊൾ വിദ്യാഭ്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും വരുന്ന കോളിഫിക്കേഷനും കാര്യങ്ങൾക്കന്നെ നല്ല ഒര് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് ഇപ്പൊൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഒക്കെ വരുന്ന പ്രശ്നം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല തൊഴിലാവസരങ്ങൾ ഒക്കെ നഷ്ടപ്പെടുകയാണ് ഇന്ന് ഇപ്പൊൾ കാരണം മറ്റൊരു സംസ്ഥാനത്ത് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലൂടെയാണ് നേടിയെടുക്കാൻ സാധിക്കാ ഇപ്പൊൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊൾ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് സംസാരിക്കാനോക്കെ കഴിയണമെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ വേണന്നാണ് എൻറെ ഒരു അഭിപ്രായം സംസ്കാരം അതായത് നമ്മുടെ സംസ്കാരം ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ നല്ല രീതിക്കുതന്നെ ആണെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നല്ല സംസ്കാരം കാര്യങ്ങൾ നമ്മുടെ കോളിഫിക്കേഷൻ സംസാര രീതി ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ നല്ല രീതിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധിക്കുള്ളൂന്നാണ് എൻറെ ഒരു അഭിപ്രായം അപ്പൊൾ അത് ചെക്ക് ചെയ്ത് നല്ല രീതിക്കന്നെ മുന്നോട്ടു കൊണ്ടു പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഇന്ന് പണം സമ്പാദിക്കാൻ ആണ് കൂടുതൽ ആൾക്കാരും ശ്രമിക്കുന്നത് അപ്പൊൾ നല്ല അപ്പോൾ ക്യാഷ് ഒക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല ജോലി വേണം ജോലികിട്ടണങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അതായത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിലാണ് ഇന്ന് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒക്കെ കഴിയുള്ളൂ അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എൻറെ ഒരു അഭിപ്രായം